ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ പ്രൊഡക്റ്റെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മൊബൈൽ ഫോണാണ് മൊബൈൽ ഫോണിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നെഗറ്റീവ് പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാനൊരു സെക്കൻഡ് മൊബൈൽ ഫോണാണ് എടുത്തത് അപ്പോൾ അതിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു മൊബൈലാണെന്ന് പറഞ്ഞിട്ടാണ് കടക്കാർ തന്നത് നല്ല ഒരു അയ്യായിരം ആറായിരം രൂപേൻ്റെ അടുത്ത് പ്രൈസ് വന്നേനു ഒരു വിവോൻ്റെ ഒരു സെറ്റായിരുന്നു സംഭവം അതിൻ്റെ ബാറ്ററി ഹെൽതൊക്കെ കുറഞ്ഞ ഒരു ഫോണാണ് എനിക്ക് തന്നത് എനിക്ക് വലിയ കാര്യമായിട്ട് നോക്കാനൊന്നും അറിയില്ലായിരുന്നു ഫോൺ നല്ലത് നോക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ബാറ്ററി ഹെൽത്തൊക്കെ നല്ല രീതിയിൽ കുറവായിരുന്ന നമുക്കിപ്പോൾ ഒരു ദിവസം പരമാവധി ഒരു ദിവസം പോലും ചാർജ് നിൽക്കാത്ത ഒരു ഫോണാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് അങ്ങനെ ക്യാമറ നോക്കുമ്പോൾ ക്യാമറയിൽ എന്തൊക്കെയോ ഇങ്ങനെ വരയും കുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല രീതിയിലുള്ളൊരു ഫോട്ടോയും കാര്യങ്ങളൊന്നും നമുക്കെടുക്കാൻ പറ്റില്ല അപ്പോൾ സെൽഫി എടുക്കുമ്പോഴും അതേ അവസ്ഥ തന്നെയാണ് സെൽഫിയിൽ എന്തോ ഇങ്ങനെ ഒരു ഇങ്ങനെ കാമറ ഇങ്ങനെ മിന്നി മിന്നി കളിക്കുന്നുണ്ടായിരുന്നു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡ് സെറ്റ് കുത്തുന്നിടത്ത് എന്തൊക്കെയോ പൊടിയും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ട് ഹെഡ് സെറ്റ് കുത്തിയിട്ടും വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയും കാര്യങ്ങളൊക്കെ അതിൽ നിന്നുണ്ട് അപ്പോൾ അതൊരു ഭയങ്കര പ്രശ്നമാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളതിന് ഉണ്ട് പിന്നെ ഹേങ്ങാകുന്നുണ്ട് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ആ വിവോൻ്റെ സെറ്റിലുണ്ട്